ആ എന്താണ് ഇല്ല ഇല്ല പറയൂ എന്താണ് എന്താണ് ഓ ഇവിടെ ഉള്ള ആൾ അല്ലല്ലേ എവിടെ നിന്നാണ് ഓ ഓ ആ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് ആ കോഴിക്കോട് നിന്നാണ് ഒരുപാട് പേർ വരാറുള്ളത് ആ എന്താണ് കാര്യം അതെ ഓക്കേ ആ ആ ഇവിടെ സീഫുഡ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഇവിടെ സീഫുഡ് ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ ആ ഇവിടെ നമുക്ക് എല്ലാ സീഫുഡും കിട്ടും ഇപ്പം ഇവിടെ എല്ലാ സീഫുഡും നമുക്ക് എല്ലാ നമുക്ക് സീ ഐറ്റംസിൽ ഉള്ള കാര്യങ്ങളും ഇപ്പ ചെമ്മീൻ കൂന്തൽ നമുക്ക് കരിമീൻ അങ്ങനെ എല്ലാ തരത്തിലും ഉള്ളതും കിട്ടും ഇവിടെ കുറച്ചുംകൂടി നമ്മൾ ഈ മരുന്ന് അടിക്കാത്ത ഒരുപാട് എന്താ പറയാ വിഷം ഒന്നും അടിക്കാത്ത നല്ല സീഫുഡ് ഇവിടെയാണ് കിട്ടുക ആ അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലതെന്ന് നമുക്ക് കുറച്ചുംകൂടി അങ്ങോട്ട് പോകാൻ ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ നോക്കാന്നുവെച്ച അവിടെ ഒരു ലണ്ടൻ റെസ്റ്റ്വാറന്റ് പറഞ്ഞട്ടിണ്ട് അവിടെ നല്ല സീഫുഡ് ഒക്കെ നന്നായിട്ട് ആകെ കുഴപ്പമില്ല നല്ല ഫുഡ് കുറേ ആ ആ ആ അവിടെയും കുഴപ്പമില്ല ആ അത് അവിടെ നല്ലൊരു തട്ടുകട മീൻസ് ഒരു നാടൻ സ്റ്റൈൽ ആണത് നന്നായിട്ടുണ്ട് അവിടെ ഒരു ഒരു ഒരു ഭാര്യയും ഭർത്താവും അവർ കൂടി നടത്തണതാണ് അപ്പോൾ അവർ വിട്ടിൽ ഉണ്ടാക്കിട്ട് കൊണ്ടുവന്ന് വെയ്ക്കുകയാണ് അപ്പം അത് നല്ല അവരുടെയും നല്ല പോകാം പിന്നെ ലഞ്ച് റെസ്റ്ററൻറ് ഒക്കെ ആണ് താല്പര്യമെങ്കിൽ അവിടെ പോം അതിൻ്റെ അപ്പറത്തും ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഗോൾഡ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെയും അത്ര കുഴപ്പമില്ല എന്നാൽ നമുക്ക് എല്ലാം ഒന്നും എല്ലാ സീഫുഡും അവിടെ അവൈലബിൾ ആയിരിക്കില്ല ഈ ഗോ ലണ്ടനിൽ എല്ലാം അവൈലബിൾ ആണ് വറുത്തതും ആ കറി വെച്ചതായാലും എല്ലാ തരത്തിലുമുള്ള ഓരോ വെറൈറ്റിസ് ഓക്കേയുണ്ട് ഇപ്പോൾ ചൈനീസും ഒക്കെ ഓരോ അതുണ്ട് ജാപനീസിൻ്റെ കറികൾ ഉണ്ട് ആ അതെയതെ ആ ആ ആ അതേ ആ ഇവിടെ ഒരുപാട് അതുതന്നെ എല്ലാവരും സീഫുഡ് തപ്പിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഇവിടെത്തെ ഈ റസ്റ്റോറന്റും കാര്യങ്ങളും ഒക്കെ കുറച്ച് അത്യാവശ്യം ഫേമസ് ആണ് അപ്പോൾ അവിടെ പോണതായിരിക്കും കുഴപ്പമില്ല ആ അതെ അതെല്ലേ ആ അവിടെ പിന്നെ അവർ വീട്ടിൽ നിന്നു ഹോംലി ഫുഡ് ആയതുകൊണ്ട് വി അത്യാവശ്യം കുറച്ചു റേറ്റ് കമ്മിയായിരിക്കും ആ ആ നമ്മൾ റസ്റ്റോറന്റിൽ ഒക്കെ പോവാണെന്നു വെച്ചാൽ അത്യാവശ്യം റേറ്റ് ആവും എന്നാലും നന്നായിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഒരു വീട്ടിൽ കഴിക്കണത് പോലെ ഒരു ആമ്പിയൻസ് കിട്ടി അവിടെ കടയിൽ നല്ലതാണ് അവിടെ ഒരു നമുക്ക് നാട്ടുപ്രേദേശത്തുള്ള പോലെ ഈ ഓല കൊണ്ട് മേഞ്ഞിട്ടൊക്കെയാണ് ആ കടയുള്ളത്

ആ ആ ആ ആ ആ ആ ഇതിനപ്പുറത്തും ഇപ്പം ഇവിടുന്ന് ഈയൊരു ഇടത്തോട്ട് പോയാൽ വേറയൊരു റസ്റ്റോറന്റും കൂടിയുണ്ട് മലബാർ റസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെയും കുഴപ്പമില്ല മലബാർ റസ്റ്റോറന്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലണ്ടനുണ്ട് ഗോൾഡ് റസ്റ്റോറന്റ് ഉണ്ട് പിന്നെ മീൻചട്ടി ഉണ്ട് ആ കുഴപ്പമില്ല ആ

ആ ഞാൻ ഇവിടുന്ന് കഴിക്കാറുണ്ട് ഞങ്ങൾ അവിടുന്ന് മക്കളുടെ കൂടെയൊക്കെ ഇടക്ക് പോയിട്ട് ഇവിടെ ഗോൾഡിലൊക്കെ പോയിട്ടുണ്ട് കുഴപ്പമില്ല ആ നമുക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് ആ ഞാ ഇവിടുന്ന് ദ ഇപ്പോൾ ഇവിടുന്ന് നോക്കട്ടെ ആ രണ്ടാമത്തെ വീട് ഗ്രീൻ പെയിന്റ് അടിച്ച രണ്ടുനില വീട് അതാണ് വീട്

ആ അതെയതെ ഇപ്പോൾ കടയിലേക്ക് പോകാൻ വേണ്ടി പോകാൻ നിന്നതാണ് അപ്പോൾ അതാണ് അറിയാത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചത് എന്തേലും ഹെല്പ് വേണോ പറഞ്ഞിട്ട് ആ ആ അതെയതെ ആ അപ്പോൾ പോകണമെങ്കിൽ അപ്പോൾ ആ അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയാൽ ലെഫ്റ്റിലോട്ട് പോയാൽ നമ്മുടെ മുമ്പിൽ എത്തി അവിടെ കടയെത്തും ഫ്രണ്ടിലോട്ട് പോവാണെന്നു വെച്ച അവിടെ ഗോൾഡ് റസ്റ്റോറന്റ് ഉണ്ട് ഓക്കേ ആ ശരി എന്ന വെച്ചോ